ഇത് റഹ്മത്ത് ഹോട്ടൽ അല്ലേ ഞാൻ കുറച്ചു മുമ്പ് കുറച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഡെലിവറി ചെയ്ത് കിട്ടി സംഭവങ്ങള് ബിരിയാണി പത്തിരി പൊറോട്ട ഒക്കെയായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് കറിയായിട്ട് ഞാന് ബീഫ് ചിക്കൻ പിന്നെ ചിക്കൻ ഞാൻ ചിക്കൻ എന്താ ചിക്കൻ കറിയാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ നിങ്ങള് ചിക്കൻറെ വേറെ രണ്ട് ഐറ്റം എക്സ്ട്രാ വച്ചിട്ടുണ്ട് അത് ഞാൻ ഓർഡർ ചെയ്തതല്ല പിന്നെ എന്തിനാണ് അത് ഓർഡർ കൂടുതൽ വെച്ചത് അതിൻ്റെ ക്യാഷ് ഞാൻ തരേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ മാത്രമല്ലേ ഞാൻ പേ ചെയ്യേണ്ടതുള്ളൂ നിങ്ങളോട് ഞാൻ വിളിച്ചപ്പോൾ റിപ്പീറ്റ് അടിച്ചു ഞാൻ ചോദിച്ചതാ നിങ്ങൾ എന്നോട് ചോദിച്ചതാ ഇത്ര സാധനമല്ലേ ഉള്ളൂ എന്ന് പിന്നെ ബില്ല് വന്നപ്പോൾ എങ്ങനെയാണ് പിന്നെ ഞാൻ ഓർഡർ ചെയ്യാത്ത രണ്ട് സാധനങ്ങളുണ്ട് ചിക്കൻ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ലോലിപോപ്പ് ഇത് രണ്ടും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ അതിൻറെ രണ്ടിൻറെയും പൈസ ഞാനെന്തായാലും പേ ചെയ്യില്ല നിങ്ങള് ഞാൻ ഓർഡർ ചെയ്തത് തെറ്റായിട്ട് ഓർഡർ പിന്നെ നിങ്ങൾ എടുത്ത് നിങ്ങൾ തന്നെ ഡെലിവറി ചെയ്യുമ്പോൾ അതെങ്ങനെ അത് ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്നുകിൽ നിങ്ങളെ തിരിച്ചുകൊണ്ട് പൊയ്ക്കോളാം ഞങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ ക്യാഷ് ഞാനെന്തായാലും പേ ചെയ്യില്ല കാരണം ഞാനത് ഓർഡർ ചെയ്തിട്ടില്ല